ഹലോ ഹലോ ആ ഞാൻ ആയുർവേദ ഡോക്ടർ അല്ലേ അതെ ആ എനിക്കൊരു കാലുവേദന ഒക്കെ ഉണ്ടായിരുന്നു അതിന് വന്നതാണ്

ആ പിന്നെ ഈ എന്താണ് ജലദോഷം വന്നാൽ അതുകൊണ്ട് ഉം ആ

ആ ആ അതെ ഉം ഉം പിന്നെ തലയിലുള്ള താരൻ അതിനോ അതിന്

പിന്നെ ഇവിടെ എത്ര സമയം തൊട്ടാണ് ഡോക്ടർ ഉണ്ടാവുക ആ അതെയോ പിന്നെ എന്താണ് ഇപ്പോൾ കിടത്തി പരിശോധന ഒക്കെ ഉണ്ടോ ആ അപ്പം അധികം ആൾക്കാർ നിൽക്കാൻ പറ്റുമോ അതോ രോഗീൻറെ ഒപ്പം ഒന്നോ രണ്ടോ ആൾക്കാരോ അത് എങ്ങനെ അതെയോ ആ അപ്പോൾ എന്താണ് അത് എങ്ങനെയാണ് അപ്പോൾ അത് ഭക്ഷണങ്ങളൊക്കെയോ അതെ ആ അപ്പം ഇറച്ചി മീനുമൊന്നും പറ്റില്ല ഉം പച്ചക്കറികൾ ആ അത് എന്തൊക്കെ കഴിക്കാം ഏതൊക്കെ ഒഴിവാക്കണം പിന്നെ ആ ഉം ഉം ആ പിന്നെ